പല സാഹചര്യങ്ങളിലും നമ്മൾ അതുപോലെയുള്ള കലാ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴ്ന്ന് വച്ച് കഴിഞ്ഞാൽ പലപ്പൊഴും നമ്മൾ നിർജ്ജീവ വസ്തുവിനേയും നമ്മൾ ലൈവായിട്ടുള്ള മോഡലിനെയും വെച്ച് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അതിൽ ഉള്ള വെല്ലുവിളികൾ എന്ന് വെച്ചാൽ നിർജ്ജീവ മോഡലുകളിൽ വളരേയധികം വെല്ലുവിളികൾ ഒന്നും തന്നെയില്ല കാരണം അതൊരു നിർജ്ജീവമായിട്ടുള്ള വസ്തുവായത് കൊണ്ടന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്ത് കഴിഞ്ഞ് നമുക്കതിനെ അതിൽ സമയം ഒരു മാനദണ്ഡമായിട്ട് വരുന്നില്ല നമുക്കെത്ര സമയം വേണമെങ്കിലും എടുത്ത് നമുക്കതിനെ നമ്മുടെ ക്യാൻവാസിലാക്കാൻ പറ്റും പക്ഷേ ഒരു ലൈവ് മോഡലെന്ന് പറഞ്ഞ് കഴിഞ്ഞ്ക്കഴിഞ്ഞാൽ അതിനെ അതിൽ ടൈം വലിയൊരു ഘടകമാണ് കാരണം നമുക്കതിനെ ആ ഒരു പൊസിഷനിൽ തന്നെ ഒരു വ്യക്തിയെ ആ ഒരു പൊസിഷനിൽ അല്ലങ്കിൽ ആ ഒരു നമ്മുടെ ഒരു ക്യാൻവാസിലോട്ട് പ പകർത്താൻ വേണ്ടിയെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വച്ച് കഴിഞ്ഞാൽ അതിലെ സമയമാണ് എത്രയും പെട്ടന്ന് തന്നെ നമുക്കതിനെ ആ ഒരു കാര്യം നമുക്ക് കമ്പ്ലീറ്റ് ചെയ്യണ്ടി വരും നിർജ്ജീവമായിട്ടുള്ള വസ്തുവും ഒരു ലൈവായിട്ടുള്ള മോഡലും തമ്മിലുള്ള താരതമ്യപ്പെടുത്തി കഴിഞ്ഞാലതിലേറ്റവും ബുദ്ധിമുട്ടുള്ളത് ലൈവ് മോഡലിനെ നോക്കി നമ്മളൊരു ചിത്രം നമ്മുടെ ക്യാൻവാസിലോട്ട് പകർത്തുന്നത് തന്നെയാണ്